ഈ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ട് കാണുന്നതും ഇനം വറപരാൽ കറോപ്പ് പിലോപ്പ് എന്നിവയാണ് ഈ മത്സ്യങ്ങളെ കൂടുതൽ കിട്ടുന്നത് കിട്ടുന്നതായിരിക്കും ഇത് കിട്ടി കഴിഞ്ഞാൽ ബ്രാഡിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത് റോഫിനും അതുപോലെ വില കൂടുതലുണ്ട് ഇത് മേടിക്കുവാനായി ആൾക്കാർ നേരത്തെ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഇത് വല്ലപ്പോഴും ചില ദിവസങ്ങളിലാണ് ഈ മീൻ വരാറുള്ളത് തന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആവശ്യക്കാർ ഉടൻ വന്ന് പറയുന്ന വിലക്ക് മീൻ മേടിച്ചിട്ട് വരും അതിലൊരു കിലോ മീൻ മീൻ വേറെ മീനിനെ നാന്നൂറ് അറുന്നൂറ് രൂപ വില നിൽക്കുന്നതായിരിക്കും കറൂപ്പും അതേപോലെ തന്നെ വില നിൽക്കുന്നതായും ഫിലോപ്പിക്കാണെങ്കിൽ അത്ര വിലയില്ല എങ്കിലും അതിന് ഒരു മുന്നൂറ് ഇരുന്നൂറ് വില നിൽക്കുന്നതായിരിക്കും ഈ മീനിനെ എല്ലാം കൂടി ഇവിടെ പ്രദേശത്ത് ഏറ്റവും കൂടി കണ്ട കിട്ടുന്ന സ്ഥലമാണ് മീൻ കറൂപ്പ് പിന്നെ കൂടാതെ ഉള്ളത് കരിമീനാണ് ഈ കരിമീനിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ് എഴുന്നൂറ് വില വരും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അത് ചില സ്ഥലങ്ങളിൽ ഇത് കൂടുതൽ കണ്ടിട്ട് വളർത്താനുള്ളതാണ് വളർത്തി പിടിക്കുന്ന മീനാണ് കരിമീനെന്ന് പറയുന്നത് രണ്ട് അത് ഏറ്റവും കൂടുതലാണ്